ഹലോ ആ ആയിരുന്നല്ലോ ആ ഓക്കെ എന്ത് ഒക്കേഷനാണ് മാം ഓ അപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണോ മാം ഇപ്പോൾ നമുക്ക് കുറച്ച് ഓഫേർസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഒക്കേഷൻ ആണ് വന്ന് കാണുകയാണോ അതോ ഞങ്ങൾ ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ തരണോ ഏതാണ് മാമിന് ഓക്കെ ആ പ്രൈസ് എന്ന് വരുമ്പോഴത്തേക്കും എല്ലാം വൺ ലാഖ് അടുപ്പിച്ച് ആണ് പ്രൈസ് വരുന്നത് ഇപ്പം ഗോൾഡ് മിക്സ് ആയിട്ടുള്ളത് ഉണ്ട് ഡയമണ്ട് തന്നെ ഉള്ളത് ഉണ്ട് പിന്നെ ബ്ലാക്ക് പിന്നെ കുറച്ച് സിലവറ് കൂടെ ഒക്കെ വരുന്ന അങ്ങനെ പിന്നെ വൈറ്റ് ഗോൾഡിൻ്റെ ഇങ്ങനെ പല കോമ്പിനേഷൻസ് ഉണ്ട് അത് അപ്പം കസ്റ്റമേഴ്സിന് ഇപ്പം കസ്റ്റമൈസായിട്ട് അവരെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ കസ്റ്റമൈസ് ആയിട്ടും പ്രിപ്പേറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇപ്പോൾ ഫംഗ്ഷൻ എപ്പോഴായിരുന്നു മാം അങ്ങനെ അല്ല മാം ഇപ്പം എത്ര മാസത്തിന് ഉള്ളിലാ ഏത് മാസത്തിലാ അല്ല നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടീട്ട് ഉള്ള ടൈമ് ഉണ്ടോയെന്നറിയാൻ വേണ്ടീട്ട് ആയിരുന്നെ ആണോ ഒരു മാസമോ ആ എന്നാൽ പിന്നെ നമ്മളുടെ കൈയ്യിൽ ഉള്ള സ്റ്റോക്ക് തന്നെ തരേണ്ടി വരും കാരണം കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതെല്ലാം കുറച്ച് നാള് പിടിക്കുമല്ലോ അപ്പം അതിനുള്ള സമയം ഉണ്ടെന്ന് തോന്നുന്നില്ല അതാ അപ്പം അങ്ങനെയാണെങ്കിൽ മാം ഞാൻ ഈ നമ്പറിലേക്ക് കുറെ എന്താ മാമിന് കുറെ ഫോട്ടോസ് അയച്ചേക്കാം ജ്വല്ലേഴ്സിൻ്റെ അപ്പോൾ മാം ഓക്കെ ആയിട്ട് ഉള്ള ഏത് ടൈപ്പാണെന്ന് പറയാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് ഞങ്ങൾ ഓഫേർസ് ഉണ്ട് മാം അതുകൊണ്ട് കുഴപ്പം ഇല്ല ഓഫേർസ് ഉണ്ട് അതൊരു ട്വൻറ്റി ഫൈവ് തൊട്ട് തേർട്ടി വരെ ഒക്കെ ആണ് ഇപ്പം

ആണോ അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ മൂന്ന് പവൻ്റെ ഒരു മാല അങ്ങനെ ആണെങ്കിൽ ഈ ഒരു പവന് ട്വൻറ്റി ഫൈവ് ഇടത്തില്ല മാം കുറച്ചൂടെ കുറയ്ക്കും അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ടേ നമ്മൾ ഈ മാര്യേജ് ഇങ്ങനെ ഒക്കേഷൻസിന് ഒക്കെ ആവുമ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ആ അതെ അതെ കമ്മലിനും എല്ലാത്തിനും അങ്ങനെ ആണ് മാം ഓരോ ഒക്കേഷൻസും അനുസരിച്ച് നമ്മൾ അങ്ങ് ഇത് ആക്കുവാ ചെയ്യുന്നതേ പക്ഷെ കുഴപ്പമില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ സമയം പോലെ വരുക ആണെങ്കിൽ അങ്ങനെ കാണാം ഇല്ലെങ്കിൽ ഞാൻ അയച്ച് തന്നേക്കാം അപ്പോൾ മാം ഏത് ആണ് ഓക്കെയെന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഉണ്ട് വെബ്സൈറ്റിൽ കേറിയാൽ ചെയ്താൽ മതി ഞാൻ ഈ നമ്പറിലേക്ക് ലിങ്ക് ഇട്ടേക്കാം ആ ഓക്കെ ഓക്കെ താങ്ക് യൂ മാം